ആ അജാസ് സാറല്ലേ ആ ഞാൻ സെബാസ്റ്റ്യൻ ആണ് ആലപ്പുഴക്കാരൻ ആണ് ഞാൻ ഇപ്പോഴത്തെ കഴിഞ്ഞ കുറെ നാളായിട്ട് പുറത്തായിരുന്നു അതേ സാർ ഞാൻ ഒരു ഞാൻ ഒരു പത്ത് നാൽപ്പത് വർഷമായിട്ട് പുറത്തായിരുന്നത് ഞാൻ അപ്പം ഞാനും ഫാമിലിയും കൂടെ നാട്ടിലേക്ക് ഒന്ന് വരികയാണ് ഞങ്ങൾ വല്ലപ്പോഴും കൂടെ ഒക്കെയാണ് നാട്ടിൽ വരുന്നത് അപ്പം ഇപ്രാവശ്യം ഞങ്ങൾ ഒരു പിന്നെ ഒരു മാസം ഒന്ന് മൊത്തത്തിൽ ഒന്ന് അടിച്ചു പൊളിക്കാമെന്ന് പറഞ്ഞു വന്ന വരികയാണ് ഇപ്പം കുറേ ആ അപ്പം ഞങ്ങൾ ഇപ്പം ആ അപ്പം ഞങ്ങൾക്ക് ഉള്ളൊരു ഒരു വലിയ താല്പര്യം എന്നാണെന്ന് പറഞ്ഞാൽ ഈ വൈൽഡ് സഫാരി ഒക്കെ എവിടെയാണ് അവിടെയൊക്കെ ഒന്ന് പോവുക എന്നുള്ളതാണ് വന്യജീവി സന്ദർശന കേന്ദ്രങ്ങൾ ഒക്കെ ഒന്ന് കാണുക അവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക

ആ ആ ആ ആ

ആ ഓ അത് ശരി ആ

അ ആ ഒ ആ കണ്ണൂർ അല്ലേ ആ ഓക്കെ ഓക്കെ ഓ ഒ ഓ

അത് ശരി ആ

ആ വരുവല്ലേ ആ ഓ അത് ശരി ആ ആ ആ നിയന്ത്രണം ഉണ്ടല്ലേ

ആ ആ ഓക്കേ സാറേ തേക്കടി എങ്ങനെയുണ്ട് തേക്കടി

ആ ടൈഗർ ഫോറസ്റ്റ് ആണെന്നോ ടൈഗർ ആണല്ലേ ഓക്കെ ഓക്കെ ആ അപ്പോൾ ഇപ്പം ആറളത്തും തേക്കടിയും ഒക്കെ ഒന്ന് കറങ്ങി പിന്നെ തട്ടേക്കാടും ഒന്ന് പോകണമെന്നുണ്ട് അവിടെ പക്ഷി സങ്കേതം ഏതാണ്ടില്ലേ ആ ആ

ഒ ഒ ഒ ആ ആ ആ ആ ആ കയറാൻ പറ്റത്തുള്ളൂ ആ ഓ ശരി ഓക്കെ ഓക്കെ

ആ ആ ആ കേട്ടിട്ടുണ്ട് പണ്ട് പിന്നെ പണ്ടേ ഇവർ കമ്മ്യൂണിസ്റ്റുകാരല്ലേ പാർട്ടിക്കാർ ആ

അവിടെ ഉണ്ടല്ലേ ആ ആ ഓക്കെ ഓക്കെ ആ അവിടെയൊക്കെ ഒന്ന് ആ ഏതായാലും ഒരു മാസം നാട്ടിലുണ്ട് പിന്നെ മൊത്തത്തിലൊന്ന് കറങ്ങിയേക്കാമെന്ന് വച്ചു ആ ആ പിള്ളേർകൊക്കെ ഒരു താൽപര്യവും ആവുമല്ലോ ആ ആ അത് ശരി ആ ആ പഴയ അതായത് ഇതെല്ലം ആ അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ഏതായാലും ഒന്ന് കറങ്ങാമെന്ന് വച്ചു ഞങ്ങളെ അടുത്ത ആഴ്ചയോടു കൂടെ നാട്ടിലെത്തും നാട്ടിലെത്തിയാൽ പിന്നെ ഒരു പത്ത് മുപ്പത്തി അഞ്ച് ദിവസം ഇവിട ഉണ്ടാവും അപോൾ ഇതിനിടയിൽ എല്ലാ ഇടത്തും ഒന്ന് പോയി എല്ലാ ഇടത്തും ഒന്നു പോയി അതിനിടയിൽ ഞാൻ സാറിനെ നേരിട്ട് കാണുകയും ചെയ്യാം വന്നു ഓക്കെ ഞാൻ നാട്ടിൽ വരുമ്പോഴത്തേക്കും ഞാൻ വിളിക്കാം വിളിച്ചിട്ട് ഓക്കേ കാണാം ഒക്കെ താങ്ക് യു താങ്ക് യൂ ശരി